ഈ ശരീര ഭാരം കൂടാൻ വേണ്ടിട്ടോ തടിവെക്കാനോക്കെ ആഗ്രഹിക്കുന്നവർ കൂടുതലും ഈ ലേഹ്യങ്ങളാണ് കഴിക്കുക സ്ത്രീകൾ സ്ത്രീകളും കുഞ്ഞുമക്കൾക്കും കൂടുതലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത് ആൺകുട്ടികളൊക്കെ ജിമ്മി പോയാലും ഇപ്പം തടി വെക്കുന്നവരുണ്ട് പണ്ട് തൊട്ടിട്ട് ലേഹ്യങ്ങൾ ഈ പൊന്നും പൂക്കുലാദി ലേഹ്യം അതൊക്കെ ഈ തടി വെക്കാൻ നല്ലതാണ് പിന്നെ ഏ ഭക്ഷണ രീതി നമ്മൾ കുറെ മധുരമുള്ളതും പിന്നെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചാൽ തടി വെക്കുന്നതാണ് ഈ കഞ്ഞിവെള്ളത്തിൽ അന്നജത്തിൻ്റെ അളവ് കൂടുതലാണ് അപ്പം നമ്മുടെ തടി വെക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഏ ചോറ് അപ്പം അതിൽ ഫാക്റ്റൊക്കെ കൂടുതലായത് കൊണ്ട് നമ്മുടെ തടി വേഗം ഇൻക്രീസാകും ഏ കുറയാതെ വേഗം കൂടുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളതും പഴയ ആഹാര രീതി അവർ പണ്ട് കാലത്തുള്ളവർ കൂടുതലും ചേന ചേമ്പ് അങ്ങനെയുള്ളതാണ് അതിലൊക്കെ ഫാക്റ്റ് കൂടുതലാണ് അതൊക്കെ വേഗം നമ്മളെ തടി തടി വെക്കാൻ സഹായിക്കുന്ന ഇതാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഹ്യങ്ങൾ തടി വെക്കാൻ വേണ്ടീട്ട് പ്രത്യേകിച്ച് മരുന്നോ അങ്ങനെ മന്ത്രോ അങ്ങനെയൊന്നുമില്ല ഈ ലേഹ്യങ്ങൾ ഹേം നാട്ട് വൈദ്യ രീതി വെച്ചിട്ട് ഓരോ ഇത് കൂട്ടി വെച്ച് അതായത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ് പിന്നെ ഇത് അപ്പോൾ നമ്മൾ ആ മരുന്ന് കഴിച്ചാൽ നല്ലതാണ് ലേഹ്യങ്ങൾ അപ്പം അതിന് ഇംഗ്ലീഷ് മരുന്ന് ഒന്നൂല്ല നാട്ട് വൈദ്യോം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഉള്ളത്